ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ആ

ആ ആ ആ ഇത് സ്ഥലം വിഴിഞ്ഞം എന്ന് പറയണ ഒരു സ്ഥലമാണ് അവിടെ ഒരുപാട് ഇത് മീനുകളൊക്കെ കിട്ടുന്നുണ്ട് നല്ല മീനുകളൊക്കെ ആണ് എല്ലാ കടകളിലും ഇവിടെ ഉള്ള അടുത്തുള്ള എല്ലാ ഹോട്ടലുകളിലും പോവാറുണ്ട് അതിൽ കൊഞ്ച് ഫ്രൈ ഉണ്ട് കണവത്തോരൻ കണവ ഫ്രൈ ഞണ്ട് ഞണ്ട് തോരൻ പിന്നെ പിന്നെ മീൻ ചുട്ട് തരുന്ന ഒരു സ്ഥലം ഉണ്ട് അത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ കോവളത്ത് പോയാലും അത് പോലുള്ള സാധനം ഉണ്ട് കക്ക എറച്ചിയെന്ന് പറയും ചിപ്പിയെന്നും പറയും അപ്പോൾ അത് ഉണ്ട് അത് ഫ്രൈ ഫ്രൈ തോരൻ പുരട്ടിയത് നല്ലത് നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ കഴിക്കാനായിട്ട് എന്ന് വരും മാഡം മാഡം എന്ന് വരും

ആ ആ ആ വരാം ആ ആ ആ മാഡം വരുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്താൽ

ആ ശരി മാഡം ശരി ഇവിടെ എല്ലാം കിട്ടും പിന്നെ എല്ലാ ഹോട്ടലിലും നല്ല ഫുഡുകൾ ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത് ആ മണക്കാട് ഉണ്ട് അമ്പലത്തറ എല്ലാം നല്ല പച്ച മത്സ്യം ആണ് നമ്മളെ ഇഷ്ടത്തിന് അവർ പാചകം ചെയ്തു തരും നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് വച്ചാൽ പറഞ്ഞാൽ മതി അത് അത് കൃത്യമായിട്ട് ചെയ്തു തന്നിരിക്കും ശരി മാഡം നിങ്ങൾ വിളിച്ചാൽ മതി എന്നെ ആ ശരി